റേഡിയോ ടെലിവിഷൻ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാള ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നു പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് പതിനാല് ജില്ലകളുണ്ട് ആ പതിനാല് ജില്ലകളുടെ ഭാഷകൾ മലയാളം തന്നെയാണ് പക്ഷെ വളരെയധികം വ്യത്യാസമുണ്ട് കാസർഗോഡ് ഭാഷ അങ്ങനെ കാസർഗോഡ് ഭാഷ അങ്ങനെത്തെ കുറേ ഭാഷകൾ വളരെയധികം വ്യത്യാസമുള്ളൊരു ഭാഷകളാണ് തൃശ്ശൂർ കോഴിക്കോട് കൊച്ചി എറണാകുളം മലപ്പുറം തിരുവനന്തപുരം അങ്ങനെ പലതരം ഭാഷകളുണ്ട് അതേപോലെ തന്നെയായിരിക്കും അവിടുത്തെ റേഡിയോ ടെലിവിഷനും അങ്ങനത്തൊക്കെ കാര്യങ്ങള് നമ്മളെ പണ്ടത്തെ റേഡിയോ ടെലിവിഷനെന്നു പറയുമ്പോള് പകുതിയും സംസ്കൃതമായിരിക്കും ആകാശവാണി സംസ്കൃതമാണ് മലയാള ഭാഷ സത്യത്തിൽ പല രീതിയിലുണ്ട് അതു വേറൊരു സംസ്ഥാനത്തും ഇല്ലാന്നാണ് എനിക്കു തോന്നുന്നത് നമ്മള് സ്ലാങ് വേറെയാണ് നമ്മള് വയനാട്ടുകാരായതുകൊണ്ട് നമ്മളെ സ്ലാങ് വേറെ അങ്ങനെ മാറ്റങ്ങളുണ്ട് സ്ലാങ്ങിലാണ് നമ്മള് റേഡിയോ ഉള്ളത് റേഡിയോ ഭാഷ സംസ്കൃതമാണ് മെയിനായിട്ടു പറയുന്നത് പണ്ടത്തെ സംസ്കൃതം അതൊക്കെത്തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്